ബൈക്കിൽ യാത്ര ചെയ്യാൻ ഏറെ ഇഷ്ടപ്പെടുന്നൊരാളാണ് ഞാന് ബൈക്കിൽ ഒരുപാട് ട്രിപ്പുകളും യാത്രകളും കൂട്ടുകാരൊത്ത് ഹൈക്കിംഗ് എല്ലാം ഞാൻ പോയിട്ടുണ്ട് ആ ബൈക്കിൽ ഒരുപാട് ഡെസ്റ്റിനേഷൻസ് ഞങ്ങള് കവറ് ചെയ്തിട്ടുണ്ട് ലോകത്ത് തന്നെ ഒരുപാട് പുതിയ ട്രെൻഡുകള് ഐ മീൻസ് ബൈക്ക് വെച്ച് നമുക്ക് പോവാൻ പറ്റിയ യാത്രകള് പോവുക ബൈക്കില് യാത്ര ചെയ്യുക ക്യാംപ് ചെയ്യുക ബൈക്ക് വെച്ച് ട്രക്കിംഗ് ചെയ്യുക ഓഫ്റോഡിംഗ് ചെയ്യുക ഇതെല്ലാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് അതുപോലെ തന്നെ വളരെയേറെ റൂട്ടുകള് നമുക്ക് മസനഗുഡി വഴി ഊട്ടി പോകുന്ന വഴികള് ഊട്ടിയില് ട്രിപ്പുകള് അതുപോലെ തന്നെ ഇവിടുന്ന് കാശ്മീര് പോവുന്നത് ലഡാക്ക് പോവുന്നത് അങ്ങനത്ത യാത്രകള് ഓഫ് ഓ വഴി മാർഗം നമ്മള് നേപ്പാള് പോവുന്നത് അങ്ങനത്തെ ഒരുപാട് യാത്രകള് ബൈക്കില് പോകാൻ എനിക്ക് വളരെയേറെ ഇഷ്ടമുള്ളതാണ് ഞാൻ പോയ യാത്രകളിൽ എനിക്കേറ്റവും ഇഷ്ടപ്പെട്ടത് ഞങ്ങൾ ഇവിടുന്ന് കാശ്മീര് പോയതാണ് വളരെയേറെ നമുക്ക് ഒരുപാട് നമ്മള് ജീവിതത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത വിഭാഗത്തിലുള്ള ഒരുപാട് ദൃശ്യ വിസ്മയങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നുണ്ട് യാത്രയില് എൻ്റ അവസരം കിട്ടിയാൽ ഉറപ്പായിട്ടും ഞാൻ യാത്ര പോകുന്ന ഒരു മസ്റ്റായിട്ട് പോവും പ്ലാന് പോവാൻ പ്ലാൻ ചെയ്തേക്കുന്ന ഞങ്ങള് കുറച്ച് കൂട്ടുകാര് കൂടി പ്ലാൻ ചെയ്തേക്കുന്ന ഒരു യാത്രയാണ് ലഡാക്ക് യാത്ര ശ്രീനഗറ് ലഡാക്ക് ഇവിടെ എല്ലാം കറങ്ങി തിരിച്ച് നമുക്ക് നാട്ടിൽ എത്തുമ്പോൾ ഉണ്ടാവുന്നൊരു സന്തോഷം വളരെ അധികമാണ്